കടലിൽ മീൻ പിടിക്കാൻ ഒരുപാട് ആൾക്കാർ തോണിയിലും ബോട്ടിലും ഒക്കെയായിട്ട് ചൂണ്ടയും അതുപോലെ വലയും ഒക്കെയായിട്ട് കടലിലേയ്ക്ക് പോകും ആഴക്കടലിലെത്തുമ്പോൾ അവർ വലയിട്ട് മീനതിൽ കുടുങ്ങിയാൽ അതിനെ അതിനെ തോണിയിലേക്കെടുത്ത് അല്ലെങ്കിൽ ബോട്ടിലേക്കെടുത്തിട്ട് മീനൊക്കെ വേർതിരിച്ച് മാറ്റും എന്നിട്ട് വീണ്ടും അപ്പം അവർക്ക് ഒരുപാട് മീനുകളായി തിരിച്ചു വന്ന് ഓരോ മീനിനേയും ഓരോ സെക്ഷനാക്കി തിരിച്ച് ഓരോ കൊട്ടയിലാക്കി ആ ആ മീൻ മുഷിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്മെല്ലൊന്നും അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസ് ഐസിൻ്റെ ഉള്ളിലേക്കാണ് മീനിനെ ഇടുന്നത് അത് ചന്തയിൽ കൊണ്ടുപോയി അവർ നിശ്ചയിക്കുന്ന റേറ്റിൽ ചന്തയിൽ നിന്നും വണ്ടികളിലേക്ക് മീൻ കൊണ്ടുപോകുന്ന ആൾക്കാർ നേരിട്ട് അവിടെ നിന്ന് ഒരു ഹോൾസെയിൽ പോലെ എടുക്കും എന്നിട്ടത് വീടുകളിലോ പിന്നതുപോലെ റോഡുകളിലൂടെ പോകും ഈ പ്രക്രിയയാണ് മീൻ പിടിക്കുന്നത് മുതൽ വിൽക്കുന്നതു വരെ നടന്നുകൊണ്ടിരിക്കുന്നത് മത്സ്യച്ചന്തകൾ ഏതൊക്കെയാണെന്ന് വച്ചാൽ എൻ്റെ സമീപത്ത് മീൻ മാർക്കറ്റുണ്ട് പെരുമത്തൊരു ഒരു മീൻ മാർക്കറ്റുണ്ട് അത് ഒരു മൽസ്യ ഇതാണ് അതുപോലെ അഞ്ചാം മൈൽ ഒരു നെഹല ഹൈപ്പർ അതിൻ്റെ അതിൻ്റെ മുൻപിലും ഒരുപാട് മീൻ മാർക്കറ്റുണ്ട് നമ്മുടെ ഈ ഈ അഞ്ചാം മൈലൊക്കെ ഒരുപാട് വിലക്കുറവിൽ മീൻ കൊടുക്കും എന്നാൽ മാനന്തവാടി മാർക്കറ്റിലൊക്കെ ഒരുപാട് മാർക്കറ്റിൽ നിന്നും മീനെടുക്കുന്ന വണ്ടികളിലേയ്ക്ക് മീൻ കൊണ്ടുപോകുന്നവർ ഒരു വിലയിൽ എടുക്കുകയും അത് നമ്മുടെ വീടുകളിലെത്തുമ്പോൾ അതിൽന്നും കുറച്ച് കൂടിയ വിലയിലാണ് നമ്മൾക്ക് കിട്ടുന്നത്